ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇവിടെ ഗ്രാമപ്രദേശമാണ് ഇവിടെ ഞങ്ങൾക്ക് അമ്പലം അടുത്തുണ്ട് പള്ളി അടുത്തുണ്ട് പിന്നെ അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പഴയ ആൾക്കാർ അമ്മമാർ ചട്ടയും മുണ്ടുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പം അവരെ പ്രത്യേകം കണ്ടാലറിയാം അവർ ക്രിസ്ത്യാനികളാണെന്നുള്ള വിവരം അറിയാം പിന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചാണെന്നരേൽ അവരെന്നും കുളിച്ചൊരുങ്ങി അവർ കുറി തൊട്ട് പിന്നെ തലേ ഒരു പൂവും ചൂടി അവരെന്നും അമ്പലത്തിൽ പോകുന്നതു കാണാം ആ അപ്പം അവരെ കാണുമ്പം പ്രത്യേകം അറിയാം അവർ ഹിന്ദുക്കളാണെന്നുള്ള വിവരം അറിയാം പിന്നെ നമ്മുടെ ഇവർ പി ആർ ഡി എസ്ക്കാരുണ്ട് അവരെ കാണുമ്പം ഒരു പ്രത്യേകം അറിയാം അവർ വെള്ളയും വെള്ളയും മാത്രം ധരിച്ചേ പോകത്തുള്ളൂ അപ്പം അങ്ങനെ ഉള്ള ആൾക്കാർ ചുറ്റും ഉണ്ട് അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട് ഓരോരുത്തരെയും അവരവരുടെ ആ റിലീജിയൻസിൻ്റെ അനുസരിച്ച് അവരുടെ ആ ട്രഡീഷൻ അനുസരിച്ചുള്ള വസ്ത്രധാരണം കാണുമ്പം നമുക്ക് ഇന്ന വിധപ്പെട്ട ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാകും പിന്നെ പിന്നെ മുസ്ലിംസ് ഇവിടെ ഏറിയാൽ തീരെ കുറവാണ് പക്ഷെ ഇപ്പം ആയിപ്പാട് അടുത്തൊക്കെ ഇഷ്ടം പോലെ മുസ്ലിംസുണ്ട് മുസ്ലിംസിനെ കാണുമ്പോഴേ നമുക്ക് പ്രത്യേകം അറിയാമല്ലോ അവർ ആണുങ്ങൾ ജോ വലിയ ഉടുപ്പ് നീളൻ ഉടുപ്പു ഇട്ടു തലയിൽ തൊപ്പിയൊക്കെ വെച്ചാണ് പുരുഷന്മാർ നടക്കുന്നത് സ്ത്രീകൾ കറുത്ത പർദ ഇട്ടു അങ്ങനെയാണ് അവർ നടക്കുന്നത് അങ്ങനെ അവരുടെ വേഷവിധാനം കൊണ്ടു അവരെ നമുക്ക് പ്രത്യേകമായിട്ടു തിരിച്ചറിയാൻ പറ്റും പി അങ്ങനെ ഒക്കെ ഇരിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ ആൾക്കാരിത്